സാധാരണ വർത്തമാന പത്രത്തിലെ ബിസിനസ് പേജിൽ നിന്നാണ് ഞാന് സാമ്പത്തികമായ വാർത്തകളൊക്കെ അത്യാവശ്യം അറിയാറുള്ളത് സാമ്പത്തികമായ വാർത്തകള് കൂടുതലായിട്ടുള്ള പത്രങ്ങളും വാർത്താച്ചാനലുകളുമേതൊക്കെയാണെന്ന് ഞാനധികം ശ്രദ്ധിക്കാറില്ല കാരണം സാമ്പത്തിക മേഖലകളില് ഞാനധികം ബന്ധപ്പെടാറില്ലാത്തതുകൊണ്ട് പത്രത്തിൽ നിന്ന് വർത്തമാന പത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ എന്ത് അറിയുന്ന പത്രത്തിൽ നിന്ന് കിട്ടുന്ന വാർത്തകൾ മാത്രമേ ഞാനതിനകത്ത് ഉപയോഗിക്കാറുള്ളൂ